കണ്ണൂർ ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു കഥയാണ് കൊട്ടിയൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊട്ടിയൂർ ക്ഷേത്രം വളരെ പ്രശസ്തമാർജ്ജിച്ചൊരു കണ്ണൂർ ജില്ലയിലെ ഒരു ക്ഷേത്രമാണ് അവിടെ ഇങ്ങനെ ഒരു പ്രശസ്തി ആർജ്ജിക്കാൻ കാരണം ദക്ഷൻ യാഗം നടത്തിയ പുരാതന കാലത്ത് ദക്ഷൻ യാഗം നടത്തിയ ഒരു സ്ഥലമാണ് സതി ദേവി അതായത് ദക്ഷൻ്റെ മകൾ ദക്ഷൻ്റെ മകൾ ശിവനുമായിട്ട് കല്യാണം കഴിച്ച സമയത്ത് ദക്ഷനത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അതിനെ തുടർന്ന് ദക്ഷൻ കൊട്ടിയൂര് യാഗം നടത്തുകയാണ് യാഗത്തിന് വേണ്ടിയിട്ട് ബാക്കിയെല്ലാവരെയും ക്ഷണിക്കുകയും എന്നാൽ സതിയെയോ അല്ലെങ്കിൽ സതിയുടെ ഭർത്താവായ ശിവനെയോ ക്ഷണിക്ക ക്ഷണിച്ചില്ല ആ ക്ഷണനമില്ലാതെ തന്നെ സതി യാഗത്തിന് പോവുകയാണ് യാഗത്തിന് പോയ സമയത്ത് ശിവനെ അവഹേളിക്കുന്ന ഓരോ വാക്കുകളവിടെ ദക്ഷൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ് അതിനെ തുടർന്ന് സതി ആ യാഗത്തിൽ ചാടി മരിക്കുകയാണ് ചെയ്യുന്നത് അതും അറിഞ്ഞ ശേഷം പരലോകത്തുള്ള ശിവന് കോപം വരുകയും ജഡ പറിച്ചെറിഞ്ഞ് അദ്ദേഹം കോപിഷ്ടയാവുകയും ആ ജഡ പറിച്ചെറിഞ്ഞത്തിലൂടെ ഒരു മകൻ രൂപപ്പെടുകയും അവൻ ദക്ഷനെ പോയി യാഗം നടത്തുന്ന സമയത്ത് ദക്ഷനെ പോയി വധിക്കുകയാണ് അതിലൂടെ ദക്ഷൻ ഒരുപാട് ഇന്ദ്ര ദേവന്മാരൊക്കെ ശിവനോട് കനിഞ്ഞു പറയുകയാണ് ക്രോധം അകറ്റാൻ വേണ്ടീട്ട് അങ്ങനെ ശിവൻ ദക്ഷന് ആടിൻ്റെ തലവച്ച് കൊടുക്കുകയാണ് അങ്ങനെ അവൻ പുനർജനിക്കുന്നതൊരു ആടിൻ്റെ തലയിലാണ് ദക്ഷൻ പുനർജ്ജനിക്കുന്നത് അങ്ങനെ ആ യാഗം പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് കണ്ണൂരിലെ ഒരു ഐതീഹ്യം അതിന് ശേഷമാണ് ആ അമ്പലത്തില് ആൾക്കാരുകള് പോകുകയും അവിടെ സ്ത്രീകൾക്ക് കയറാൻ പ്രത്യേകമായൊരു കാലയളവുണ്ട്